ഹലോ ഹലോ ആ ഓക്കെ പറഞ്ഞോളൂ മാഡം ഇപ്പോൾ ഓണത്തിന് നമുക്ക് ഉണ്ട് മാഡം ഓഫറുണ്ട് തെർറ്റീൻ പെർസെന്റജ് വെച്ച് ഓരോ പർച്ചേസിനും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ആ ത്രീ തൗസ ത്രീ തൗസന്റിൻ്റെ മേളിലേക്ക് പർച്ചേസ് വരുമ്പോട്ടോ എങ്ങനെ കോമ്പോ ഓഫറും ഉണ്ട് മാഡം ആ വൺ ഡബിൾ ണെയൻല് പർച്ചേസ് ചെയ്ത് ആ ത്രിബിൾ ണെയൻല് പർച്ചേസ് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പോ ഓഫർ വരുന്നുണ്ട് കുട്ടികളെങ്ങനെ എത്ര മാസായതാണ് കുട്ടി ടെൻ മന്ത് ആ ഓക്കെ അപ്പോൾ നമുക്കൊരു ത്രിബിൾ സിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യൂം ആ ബൾക്കായിട്ട് എടുക്കാനാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൂപ്പണായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത് അത് ഓണത്തിൻ്റെ തലേദിവസം നമ്മൾ നറുക്കെടുക്കും ഫസ്റ്റ് പ്രൈസ് ടൂ വീലറാണ് സെക്കൻ പ്രൈസ് സ്മാർട്ട് ടി വി ഏഹ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ആ അതെ അതെ

ആ മാഡം വന്നോളൂ നമുക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്ത് തരാൻ കഴിയും മാഡത്തിന് ആ ആഹ് ആ ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഫെയ്ക്കായിട്ടുള്ള ന്യൂസുകൾ കൊടുക്കുന്നില്ല മാഡം എല്ലാം പെർഫെക്റ്റാണ് സൺഡേ ഒക്കെ ഓപ്പണാണ് മാഡം

ലേഡീസ് അങ്ങനെ നമുക്കിപ്പോൾ ചുരിദാറ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ സെവെൻ ഡബിൾ ണെയൻല് സ്റ്റാർട്ട് ചെയ്യും ധാവണിക്കൊക്കെ വൺ ത്രിബിൾ ണെയൻ ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട് കോ ക്വാളിറ്റി ഉള്ള സാധനത്തിന്

ആ ആ ഉണ്ട് മാഡം